ആ ഹലോ റോഷ്നി ആ എന്തുണ്ട് വിശേഷം ഏയില്ല സുഖമായിട്ട് ഇരിക്കുന്നു ക്ലാസ്സ് ഒക്കെ എങ്ങനെ പോകുന്നു ആ ഇല്ല ഞാൻ വെറുതെ ഒരു സംശയം ചോദിക്കാനായിട്ട് ഏയ് അത്ര വലിയ സംശയം ഒന്നും അല്ല ആ ആ ഓക്കേ ഓക്കേ ഏയ് ഇല്ലില്ലല്ല ആ അത് വന്നിട്ട് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെ എങ്ങനെ ആ അതെ അതെ അതെ ആ ആ ഇല്ലല്ല ഇപ്പം ആ നമുക്ക് പുനരുപയോഗിക്കാവുന്നതൊക്കെ പരമാവധി ആ ആ ഓക്കേ ഓക്കേ ഇല്ല പ്ലാസ്റ്റിക് പോലെയുള്ള ഇതൊക്കെ ഇപ്പം മാസാ മാസം നമ്മുടെ ഹരിത കർമ്മ സേനമ്മാർ വരുമ്പം അവർക്ക് അവരുടെ കീഴിലാണ് പോകുന്നത്

ഇല്ല പച്ചക്കറിയെ ആ ഇല്ലില്ല പച്ചക്കറി ഫുഡ് പോലുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ആ അതൊക്കെ ഞാൻ സാധാരണ ഫുഡ് വേസ്റ്റ് വരികയാണെങ്കിൽ അങ്ങനെ കുഴിച്ചിടുകയാണ് ചെയ്യാറ് അധികം അങ്ങനെ വേസ്റ്റ് വരാറില്ല പരമാവധി ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക ബാക്കി വരുന്ന വേസ്റ്റ് ഒക്കെ നമുക്ക് പൂന്തോട്ടങ്ങളിലും പച്ചക്കറിയിലൊക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുതന്നെ ആ അതെയതെ ചെടി നടുമ്പഴായാലും ആ വേസ്റ്റ് എടുത്ത് ആ വളം ഇട്ട് ഉപയോഗിക്കുകയാണ് അതെ അതെ ആ ഈ നമ്മുടെ റീസൈക്ലിങ്ങിന് പറ്റിയ ഗ്ലാസ് പേപ്പർ അങ്ങനെത്തെ കാർഡ് ബോർഡ് പ്ലാസ്റ്റിക് ടയർകളൊക്കെ നമ്മുടെ ആ അങ്ങനെത്തെ തുണിത്തരങ്ങൾ അങ്ങനെത്തെയൊക്കെ നമ്മൾ ആ പുനരുപയോഗിക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം അതൊക്കെ എങ്ങനെയാ ആണോ ഗാർഹിക റീസൈക്ലിംഗ് സെൻ്റർ ആ അതെയതെ അതെ ഞാൻ അങ്ങനെ ഒരു അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശരിക്കും വിളിച്ചിരുന്നത് ആ അതിനുള്ള ഓപ്ഷൻ എന്തായിരുന്നു എന്ന് അറിയാനായിട്ട് റീസൈക്ലിങ്ങിന് കൊടുക്കാ ആ ആ പേപ്പർ ഒക്കെ ആ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പേപ്പർ ആക്കി മാറ്റും ഓക്കേ ഓക്കേ ആ ആ അതെയതെ അല്ല ഇപ്പം കുപ്പികൾ പരമാവധി ഞാൻ ആ പ്ലാസ്റ്റിക് കവറുകൾ ഒക്കെയാണ് അവർക്ക് കൊടുക്കുക അതെയതെ ഈ കുപ്പികളും കാര്യങ്ങളൊക്കെ ആ അതെ ആ അതിലൊക്കെ ചിലതിലൊക്കെ ചെടിയെക്കെ നട്ടുവെച്ച് വീട്ടിൽ തന്നെ അങ്ങനെ ഉപയോഗിക്കും ആ ആ അങ്ങനെ ആ സെൻട്റ്ല് കൊടുത്ത് ആ ആ അതെയതെ അതെ ആ മുൻസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ആ ഓക്കേ അപ്പം ഗ്ലാസ് പേപ്പർ കാർഡ് ബോർഡ് പ്ലാസ്റ്റിക് ടയർ ടയറ്കൾ അങ്ങനെത്തെയൊക്കെ ഉണ്ടെങ്കിൽ ആ അതുപയോഗിക്കാൻ പറ്റുമല്ലേ ഓക്കെ ഓക്കെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ആ ഞാൻ എനിക്ക് കറക്റ്റ് അറിവ് ഉണ്ടായിരുന്നില്ല അപ്പം ഗാർഹിക റീസൈക്ലിംഗ് സെൻറ്റർ വഴി ആ ഇത് എല്ലാവർക്കും പുനരുപയോഗിക്കാൻ പറ്റും ആ ഓക്കേ ഓക്കേ അതെയതെ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക് യൂ ആ അതിനെക്കുറിച്ച് അറിയാനാ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല സാധാ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെ കൊടുക്കുന്നു ആ അപ്പം ഈ കുപ്പി പ്ലാസ്റ്റിക് ഇതൊക്കെ കൊടുക്കുമ്പം എക്സ്ട്രാ പെയ്മെൻ്റ് ഒക്കെ വേണോ അതൊക്കെ ഒരു ഡൗട്ട് ആയിരുന്നു ഏയ് ഇല്ലില്ലില്ല ആ അല്ല നമ്മൾ ഇങ്ങനെത്തെ എന്താണ് മാലിന്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കളയുന്നതിലൊക്കെ ഉപയോഗിക്കാം പുനരുപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത് മിറ്റത്തേക്ക് വലിച്ചെറിയുക അല്ലെങ്കിൽ പരിസരത്തേക്ക് ഇട്ട് വൃത്തികേടാക്കുന്നതിലും ഭേദം അത് റീസൈക്ലിങ് ചെയ്ത് നമുക്ക് വീണ്ടും അത് ഉപയോഗപ്രദമാവുമെങ്കിൽ അത് അതല്ലേ ഏറ്റവും നല്ലത് അതെയതെ ആ വളരെ നന്ദി ആ താങ്ക് യൂ താങ്ക് യൂ ശരി